ഇപ്പോൾ വിദ്യാഭ്യാസം തൊഴില് അതായത് സാമൂഹിക നില അങ്ങനെയുള്ള എല്ലാത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയില് പറയുകയാണെങ്കില് സ്ത്രീകള് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് പിന്നെ അതുപോലെത്തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ ജോലിക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് കോഴിക്കോട് ജില്ലയിലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങള് ഒരുപാടുള്ളൊരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു ജോലിക്ക് പോയിരുന്നാലും നമുക്ക് സ്റ്റാർട്ടിങ്ങ് എങ്ങനെ പോയാലുമൊരു പതിനായിരം രൂപ നമ്മുടെ കയ്യില് കിട്ടും ആ ഒരു പിന്നെ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് സ്ഥലത്തൊക്കെ സ്ത്രീകൾക്കെതിരെ വിവേചനം ലിംഗ സമത്വം അതായത് സ്ത്രീ ശാക്തീകരണം അങ്ങനത്തെ പരുപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഗാർഹിക പീഡനം ഇപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലു ഒരുപാട് വീട്ടില് അച്ഛനമ്മമാരൊക്കെ പഠിപ്പിച്ചിട്ട് അതായത് കെട്ടിച്ചു വിടും കെട്ടിച്ചു വിട്ടതിന് ശേഷം പിന്നെ അതായത് നല്ലോണം ചിലപ്പോൾ പി ജി എം കോം കാര്യങ്ങളും എല്ലാം പഠിച്ച കുട്ടികളായിരിക്കും പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞ് കെട്ടിച്ചു വിടണമെങ്കിൽ പിന്നെ അവർക്ക് അവരെ എവിടേയും വിടില്ല അവരെ വീട്ടില് പണിയെടുപ്പിച്ച് അവിടെ ഇരുത്തും ആ ഒരവസ്ഥയില് ഉള്ള ഒരുപാട് കുട്ടികള് ഇപ്പോൾ നമ്മള് കേൾക്കാമല്ലോ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് മരിച്ച കുട്ടികളും അങ്ങനത്തെ കാര്യങ്ങളുള്ള കുട്ടികളൊക്കെ അങ്ങനുള്ള വിവേചനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ ജില്ലയിലുമുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയില് മാത്രമല്ല എല്ലാ ജില്ലയിലുമുണ്ട്